വയനാട് ജില്ലയിൽ പ്രധാന സാമൂഹ്യക്ഷേമ വികസന പരിപാടികൾ അല്ലെങ്കിൽ സംരംഭങ്ങളൊക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിലും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനായി ദാരിദ്ര്യ നിർമ്മാർജനത്തിനായും സ്ത്രീ ശാക്തീകരണത്തിനായൊക്കെ ഒരുപാട് പദ്ധതികൾ സർക്കാർ നിലവിൽ വരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ബാഗും കുടയും സൗജന്യമായി നൽകുക അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് അതുപോലെ എട്ടാം ക്ലാസ് വരെ പഠന പുസ്തകങ്ങൾ പഠന പുസ്തകങ്ങളും അതുപോലെ യൂണിഫോമൊക്കെ സൗജന്യമായി നൽകുക അതുപോലെ ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുക പിന്നെ ഏഴാം ക്ലാസ് വരെ മുട്ടയും പാലും കൊടുക്കുക അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മേഖലയിൽ സർക്കാർ നൽകുന്ന ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾക്ക് പോഷകം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനായുള്ളൊരു സർക്കാരുടെ നയം തന്നെയാണ് അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇപ്പോൾ എല്ലാവർക്കും പോഷകഗുണമുള്ള ആഹാരം കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുന്നതും സർക്കാർ അതിൽ പിൻ മുന്നോട്ട് തന്നെ വരുന്നുണ്ട് അതുപോലെതന്നെ സ്ത്രീ ശാക്തീകരണത്തിനായി സ്ത്രീകൾക്കായി ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുക സ്ത്രീകൾക്ക് കുടുംബശ്രീ പോലുള്ള അവസരങ്ങൾ നൽകുക പൈസ സ്വരൂപിക്കുന്നതിനായും അതുപോലെ സ്ത്രീയെ ഒരു ഒരു പ്രദേശത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓരോ മാർഗ്ഗങ്ങളാണ് ഈ കുടുംബശ്രീ പോലുള്ള ഓരോ സംരംഭങ്ങൾ കുടുംബശ്രീയിലെ ആൾ സ്ത്രീകൾക്ക് പച്ചക്കറി വിത്ത് നൽകുക അല്ലെങ്കിൽ ചെടികൾ നൽകുക അതുപോലെ അവർക്ക് പച്ചക്കറി വിൽക്കാൻ ഉള്ള ഒരു ഒരവസരം നൽകുക ഈ അതുപോലെ ചക്ക ചക്കയെക്കുറിച്ച് ചക്ക ചക്കപപ്പടം ചക്ക വറുത്തത് അതുപോലുള്ള ചക്ക മഹോത്സവമെന്നു പറയുന്നത് ഒരു ടൗൺ ഹാളിൽ വച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാം അതവർക്ക് നൽകുക ഇതൊക്കെ സ്ത്രീ ശാക്തീകരണത്തിന് പറ്റിയ ഒരു ഒരു അവസരങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്തായിക്കോട്ടെ തൊഴിലുറപ്പ് പദ്ധതി ഈ ഒരു പദ്ധതി മൂലം നമ്മൾക്ക് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മമാർക്ക് ഒരു അവർക്ക് സ്വയംതൊഴിൽ അവസരവും അതുപോലെ അവർക്ക് വീട്ടിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ ഒരു പരിസരം സംരക്ഷിക്കുന്നതുമായുള്ള ഇത് രണ്ടും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒര് ശിശു വികസന സേവനങ്ങളെ കുട്ടികൾക്ക് അംഗൻവാടി പോലുള്ള ഒരു അവസരം നൽകുക അംഗൻവാടി പോലുള്ളൊരു പഠന കേന്ദ്രം നൽകുക അവർക്ക് പിൻ അംഗൻവാടി വഴി അമൃതം പൊടിയും അതുപോലെ പോഷക ഗുണമുള്ള ആഹാരങ്ങൾ നൽകുക ഇതൊക്കെ സർക്കാർ നൽകുന്ന പദ്ധതികളും നയങ്ങളുമാണ് ഇത് നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് എന്നല്ല എല്ലാവർക്കും എത്തി എത്തിച്ചു കൊടുക്കുന്നതാണ്